ഞാനൊരു വസ്ത്രം ഡിസൈൻ ചെയ്യുന്നത് പിന്നെ ഓരോ വസ്ത്രവും ഡിസൈൻ ചെയ്യുന്നത് അത് ഓൺലൈൻ വഴി ചിലപ്പോൾ കാണും ഇല്ലെങ്കിൽ ആരെങ്കിലും ഇട്ടിരിക്കുന്ന ഒരു ഡിസൈൻ കാണും അതു നോക്കി അതിൻ്റെ പാറ്റേൺ ആ ആ തിരഞ്ഞെടുക്കും അതു വസ്ത്രം തയ്ക്കുന്നതിനു വേണ്ടുന്ന അളവുകളും അതെങ്ങനെയാണ് തയ്ച്ചിരിക്കുന്നത് അതിൻ്റെ എന്തെല്ലാം എന്തൊക്കെ ആയിട്ടു തിരഞ്ഞെടുത്തു തയ്ക്കുന്നത് അങ്ങനെയുള്ള അളവുകളെല്ലാം എടുത്താണ് നമുക്ക് പുതിയ മോഡലൊരു ഡ്രസ്സ് ആരെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രോക്കാകാം ചുരിദാറാകാം അതെങ്ങനെയാണ് തയ്ക്കുന്നതെന്നു വെച്ചാൽ തുണിയെടുത്ത് അതിൻ്റെ അളവെടുത്ത് ആ ഒരു തുണി ചിലപ്പോൾ വാങ്ങും വാങ്ങിയിട്ട് അതിൻ്റെ ഇതു നോക്കി തയ്ക്കാറുണ്ട് അല്ലെങ്കിൽ ഓൺലൈൻ വഴിയാണ് കൂടുതലും ഞാൻ ഓൺലൈനിലെ ഈ സ്റ്റിച്ചിംഗ് ക്ലാസ്സൊക്കെയുണ്ട് അപ്പോൾ അതു നോക്കും അപ്പോൾ അതിനകത്ത് ഒരു തയ്യലുകളുടെ അളവുകളും രീതികളുമൊക്കെ കൊടുക്കും അതു നോക്കിയെടുക്കും ഇല്ലെങ്കിൽ നമ്മുടെ പഴയ ബ്ലൗസുകൾ ചുരിദാറുകൾ അങ്ങനെ തൈക്കുമ്പോൾ പിന്നെ നെക്കു മാത്രം പല ഫാഷണിൽ നോക്കും എന്നിട്ട് നമ്മുടെ അളവു കിട്ടുന്ന തുണിയിൽ നിന്ന് അളവെടുത്തു കൊണ്ടാണ് കൂടുതലും സ്റ്റിച്ച് ചെയ്യാറുള്ളത് പിന്നെ ഓൺലൈൻ വഴി ഓരോ സാധനങ്ങൾ മേടിക്കുകയൊക്കെ ചെയ്യും പിന്നെ അതായത് ഇതിനു വേണ്ടുന്ന ലെയ്സ് പിന്നെ ഹുക്സുകൾ ഇലാസ്റ്റികുകൾ അങ്ങനെയുള്ള സാധനങ്ങളും പിന്നെ ഓൺലൈൻ വഴി മേടിക്കും ഓരോ ഏതെങ്കിലും സാ ബ്രാൻഡ് ഓരോ ബ്രാൻഡിൻറ്റേതു നല്ലതെന്നു നോക്കി അത് ചൂസ് ചെയ്യുന്നുണ്ട് പിന്നെ സുഹൃത്തുക്കളിൽ നിന്നും ആശയങ്ങൾ സീകരിക്കാറുണ്ട് അവർ അവർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്തുവാണ് ചെയ്യുന്നത് എന്നു നോക്കി തയ്ക്കാറുണ്ട് പിന്നെ നമ്മൾ തുണി കൂടുതലും തുണികൾ അളവെടുത്ത് അതിൻ്റെ ഡിസൈൻ നോക്കി പിന്നെ ഓൺലൈൻ വഴിയുള്ളത് ഡിസൈൻ നോക്കിത്തന്നെയാണ് യൂട്യൂബിനകത്തും നിന്നൊക്കെയുള്ള ഡിസൈൻ നോക്കിത്തന്നെയാണ് തൈക്കുന്നത്

തിരഞ്ഞെടുക്കും പുതിയ പുതിയ ഫാഷനുകളെ തൈക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് പിന്നെ അതു ചിലപ്പോൾ കൂട്ടുകാരിൽ നിന്നായിരിക്കാം എങ്ങനെയാണ് അതിൻ്റെ എടുക്കുന്നത് അല്ലെങ്കിൽ അറിയാത്തത് നമ്മൾ കൂടുതലും യുട്യൂബിൽ നിന്നു വരുന്ന സംഭവങ്ങളാണ് അതു ചെയ്യാറുള്ളത് പിന്നെ ഓൺലൈൻ സാ വഴി പിന്നെ ഡ്രസ്സുകൾ മേടിച്ചിട്ട് അതായത് പീസുകൾ തുണി പീസുകൾ മേടിച്ച് അതുകൊണ്ട് നമ്മൾ ഡ്രസ്സ് ഇഷ്ടമുള്ള രീതിയിൽ തയ്ക്കാറുണ്ട് അങ്ങനെ ഒരു പിന്നേ കൂടുതലും ഓൺലൈൻ വഴി തന്നെയാണ് നമ്മൾ കൂടുതലും പിന്നേ ഇതിൻറ്റേതായ ഡ്രസ്സുകളുടേതായ എല്ലാ മോഡലുകളൊക്കെ തിരഞ്ഞെടുക്കുന്നതും തയ്ക്കുന്നതും പിന്നെ നമ്മുടെ കൂടെതന്നെ ഉള്ള കൂട്ടായ്മയിലും

എന്തു വേണം അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്ന കുറച്ച് അധികം ആൾക്കാരുണ്ട് അവരുമായിട്ടു കൂടുതൽ കാര്യങ്ങളെ പറ്റി തയ്യലിനെ പറ്റിയും പറഞ്ഞ് അങ്ങനെയാണ് ഓരോ ഇതു പിന്നെ ഫാഷനും ഡിസൈനൊക്കെ തിരഞ്ഞെടുത്തു തുണികൾ തയ്ക്കുകയും നമ്മൾ ഓൺലൈൻ വഴി ബിസിനസ്സുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട് ഓഡർ അനുസരിച്ച് നല്ല നല്ല ഫാഷനുകളിൽ തുണികൾ തുന്നിക്കൊടുക്കുന്നുണ്ട് അപ്പം ആ പിന്നെ ഓൺലൈൻ വഴി നമ്മുടെ അഡ്രസ്സ് കൊടുത്ത് പിന്നെ അങ്ങനെ വാട്ട്സപ്പ് ഇതൊക്കെ വഴിയായിട്ട് സാധനങ്ങൾ വിറ്റഴിക്കുകയും ചെയ്യുന്നു